നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന മായ ഒരു മേഖലയാണ് കാർഷിക മേഖല കാർഷിക മേഖലയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് പലതരം കാർഷികോൽപ്പന്നങ്ങൾ നമ്മൾ നമ്മുടെ വിപണികളിൽ ലഭ്യമാണ് കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഗതാഗതമാർഗ്ഗമെന്ന് പറയുന്നത് കാരണം പണ്ടുകാലത്ത് നമുക്കറിയാം സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുന്ന രീതികളും ഒക്കെയായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നത് എന്നാൽ ഇന്നത് മാറി പണം എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി സാധനങ്ങൾക്ക് പകരം പണം നൽകുന്ന ഒരു രീതി പണമിടപാട് എന്നൊരു രീതി ഇവിടെ വന്നു അങ്ങനെയൊരു സിസ്റ്റം നിലവിൽവന്നു അപ്പോള് കാർഷികോൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് എത്തിക്കാൻ നമുക്ക് കാർഷികോൽപ്പന്നങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് വേണം ഗതാഗത ഗതാഗതപരമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗതാഗതമാർഗ്ഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലവിലുണ്ട് ജലഗതാഗതമായിക്കോട്ടെ റോഡ് ഗതാഗതമായിക്കോട്ടെ അതുമല്ലെങ്കിൽ ആകാശത്തിലൂടെയുള്ള ഗതാഗതം ഇങ്ങനെ പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് ഇത്തരത്തിലുള്ള പല ഗതാഗതരീതികളും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാർഷികോൽപ്പന്നങ്ങൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു അതുപോലെ കൃഷി ചെയ്യുന്നയാളുകൾ എപ്പോഴും ചൂഷണത്തിനിരയാകുന്നവരാണ് അവർക്ക് അവരുടെ അദ്ധ്വാനത്തിന് അനുസൃതമായ പണം കിട്ടുന്നില്ല എപ്പോഴും അവർ ഒരു ചൂഷിത വിഭാഗത്തിൽപ്പെടുന്നവരാണ് നമുക്കറിയാം നമ്മൾ സാധനങ്ങൾ കടയിൽ പോയി മേടിക്കുമ്പോള് വളരെ വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്നു എന്നാൽ ഇതേ സാധനങ്ങൾ കർഷകരിൽ നിന്നും തുച്ഛമായ വില കൊടുത്തിട്ടാണ് ഈ ഇടനിലക്കാര് വാങ്ങിക്കുന്നത് അതൊക്കെ കാർഷിക മേഖലയിലുള്ള പോരായ്മകളാണ് ഇത്തരത്തിലുള്ള എല്ലാ പോരായ്മകളും ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ നമുക്ക് കാർഷിക മേഖലയെ രക്ഷിക്കാം കൃഷിയെന്നത് അന്യംനിന്നുപോകേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി